ഹലോ ആരായിരുന്നു ആഹ് അതെയല്ലോ ആഹ് ആഹ് എന്ത് ചെയ്യാനായിരുന്നു

ആണല്ലേ ആഹ്ഹ ആഹ് നമുക്കപ്പോള് കമ്പ്ലീറ്റ് റിവർക്ക് ചെയ്തെടുക്കാനായിരുന്നോ ഫുള് ഓഹ് ഓക്കേ അപ്പം മ്മ് ആഹ്ഹ് ആ അപ്പോള് ഇതിന് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ ഒത്തിരി പഴയ ബില്ഡിങ്ങ് ആണെന്നുണ്ടെങ്കില് നമുക്കത് മൊത്തം പൊളിച്ച് വീണ്ടും റീവയര് ചെയ്യാമെന്നതേയുള്ളൂ അപ്പോള് നിങ്ങളുടെ ബിൽഡിങിന് എന്തായാലും ഒരു നമുക്കൊരു ക്രാക്ക് ഇടേണ്ടിവരും അഹ് അത് പ്രശ്നമാകുമോ

ആഹ്ഹ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് വീട് വന്നിട്ട് ഒന്ന് ആഹ്ഹ ഇൻസ്പെക്റ്റ് ചെയ്യാം അപ്പം വീടിൻ്റെ പഴക്കം അനുസരിച്ചു ഞാൻ കൺഫോമായിട്ട് പറയാം കാര്യം നമുക്ക് ഒരുപാട് പഴക്കമുള്ള വയറിങ്ങാണെന്നുണ്ടെങ്കിൽ നമ്മള് റീവർക്ക് ചെയ്യുമ്പോള് കമ്പ്ലീറ്റ് വയറിങ് എടുക്കണമെന്നുണ്ടെങ്കില് പലതും അറിയാമല്ലോ ഭിത്തിക്കുള്ളില് കുടെയായിരിക്കുമല്ലോ പോകുന്നത് ആ അന്നേരം നമുക്കത് പൊളിക്കേണ്ടതായിട്ട് വരും അല്ലാതെ നമുക്ക് ചെയ്യാൻ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ല പിന്നെ നമുക്ക് മാക്സിമം നോക്കാം നമുക്ക് വെളിയില് കുടെ വല്ലതും കണക്ഷനെടുത്തിട്ട് നേരത്തെയുണ്ടായിരുന്ന വയറിംഗ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയതിലേക്ക് സ്വാപ്പ് ചെയ്യാന് പറ്റുമോയെന്ന് നോക്കാം ആഹ്ഹ വേറെയെന്തെങ്കിലും അറിയാനുണ്ടായിരുന്നോ ആഹ്ഹ ബഡ്ജറ്റ് എന്നുപറയുമ്പോള് നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റായിരുന്നു രണ്ടായിരത്തിയഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെ അപ്പം രണ്ടായിരത്തിയഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഓഹ് രണ്ട് നിലയാണോ ഒരു നിലയാണോ ആഹ്ഹ് ഓക്കെ അപ്പോള് അങ്ങനെയാണെന്നുണ്ടെങ്കില് മ്മ്ഹഹ് നമുക്ക് കൃത്യം സ്ക്വയർ ഫീറ്റ് എടുത്തുപറയാൻ പറ്റില്ലെങ്കില്ക്കൂടി എറൗണ്ട് ഒരു ഫൈവ് ടു ടെൻ ലാഖ് വരും നല്ല ക്വാളിറ്റി വയറിങ് കൊടുക്കാനാണെന്നുണ്ടെങ്കില് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിപ്പം ഇ എം ഐയുടെ ഓപ്ഷൻ വരുന്നുണ്ട് ലൈക് ഒത്തിരി ആഹ്ഹ നമുക്കിപ്പം അതിന് റെഡി ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കില് നമുക്കിപ്പം ഫിനാൻസ് ഇഷ്ടംപോലെ ബാങ്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഹൗസിങ് ലോണില് തന്നെ ഇതിന് സെപറേറ്റായിട്ട് ഒരു അലവെൻസ് നമുക്ക് കിട്ടും ഇപ്പം നമുക്കിപ്പം പുതിയൊരു ഹൗസ് പണിയുന്നില്ലാത്തതുകൊണ്ട് ഒരു പേർസണൽ ലോണോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലും മതിയാകും ആഹ്ഹ വേറെ വല്ലതും അറിയാനുണ്ടായിരുന്നോ

ആഹ്ഹ ശരി എന്നാല്